കഴിഞ്ഞ ദിവസം മ മക്കൾക്ക് വേണ്ടീട്ട് മേശോയില് നിന്ന് രണ്ട് ടോപ്പ് ഓഡ്റ് ചെയ്തായിരുന്നു നല്ല ടോപ്പായിരുന്നു ഇപ്പോഴത്തെ കുട്ടികള്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി മോഡലായിട്ടുള്ള ടോപ്പ് ഇടാനാഗ്രഹിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അതക്കെ വാങ്ങിക്കണവെന്നുണ്ട് നമ്മൾ ടൗണ് ഏര്യേല് തന്നെ പോണം ആലുവ എറണാകുളത്തിലക്കെ പോയാത്തന്നേ കിട്ടൂള്ളു അപ്പം ഇങ്ങനൊരൂ പ്ലാറ്റ്ഫോം നമുക്കുള്ളത് കൊണ്ട് എനിക്കക്കെ എത്രയോ യൂസ്ഫുള്ളാണെന്നറിയാവൊ നല്ല പ്രൊഡക്റ്റായിരുന്നു മക്കൾക്ക് നല്ലിഷ്ടമായി അപ്പം അവരിപ്പം പറയുന്നത് എന്താന്ന് വെച്ചാൽ എനീപ്പ എന്തിനാമ്മേ ഇത് വാങ്ങിക്കാന് വേണ്ടീട്ട് ആലുവയ്ക്കും എറണാകുളത്തിനുവൊക്കെ പോന്നെ ഇതില് നോക്കി വാങ്ങിച്ചാപ്പോരെ ഞങ്ങൾക്കിത് മതി ഞങ്ങൾക്ക് നല്ല കറക്റ്റ് പാകാണ് ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ബെറ്ററ് ഇനീം ഇത് തന്നെ വാങ്ങിച്ചാൽ മതിയെന്നാണ് അവർ പറയുന്നത് അവരുടെ പറഞ്ഞുകേട്ടപ്പോൾ ഞാനപ്പോൾ എഗൈന് ഞാനൊരു ചുരിദാറുങ്കൂടി ഓഡറ് ചെയ്തായിരുന്നു അതും എനിക്ക് നല്ല കറക്റ്റ് മാച്ചുവാണ് കറക്റ്റ് സൂട്ടാണ് നല്ല കളറും കളർ പോകുന്ന് കഴുകി നോക്കി പക്ഷേ കളറൊന്നും പോകുന്നില്ല നല്ല ഡ്രെസ്സ് അപ്പം കുട്ടികളും അതുതന്നെയാണ് പറയുന്നത് വില നോക്കുവാണെങ്കിൽ വിലയും മെച്ചന്തന്നെയാണ് നമ്മളിപ്പോൾ ദൂരെ എറണാകുളത്തൊക്കെ പോയി ബെസ്സിൽ കയറി പോയി വാങ്ങിച്ചോണ്ട് വരുന്ന അതിന്റെ ട്രാവലിന്റെ ചാർജും പിന്നവടെ ചെന്ന് നോക്കി വളരെ ബുദ്ധിമുട്ടാണ് ഇതിപ്പം നമ്മൾ ഫോൺ കയ്യിലുണ്ടേ നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടും നല്ല പ്രൊഡക്റ്റായിരുന്നു നല്ല കളറ് തി